ഇപ്പോൾ കൃഷിയിൽ വരുന്ന മാറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഫുൾ ടി എന്താണ് പറയുക ബെഡ്ഡ് തൈയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായി പിന്നെ കൃഷിയിൽ നമ്മൾ ജൈവവളമാണ് പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ അല്ലാത്ത രാസവളങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് മണ്ണിനും കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ചെടികളൊക്കെ നന്നായിട്ട് വളരുവെങ്കിലും മണ്ണ് നാശം ആവാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് ഇപ്പോൾ ഫുൾ രാസവളങ്ങളും കാര്യങ്ങളാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഒരു വാഴ നടുവാണെങ്കിൽ തന്നെ വാഴയ്ക്ക് ആദ്യം തന്നെ നമ്മൾ രാസവളവും അതായത് ഫാക്റ്റം ഫോസും അങ്ങനത്തെ വളങ്ങളാണ് യൂസ് ചെയ്യുന്നത് അപ്പം കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ്ഡ് തൈയാണ് കൂടുതലായിട്ടും നടുന്നത് അതായത് ഇപ്പോൾ ഒരു മാവിൻ്റെ തൈ നടുവാണെങ്കിൽ അത് ബെഡ്ഡ് തൈയാണ് നമ്മളിപ്പോൾ നടുന്നത് അല്ലാത്ത തൈകളൊക്കെ ആർക്കും വേണ്ടാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ താഴെ വീണ് മുളയ്ക്കുന്ന തൈകളൊന്നും നമുക്ക് ആർക്കും വേണ്ടാത്തൊരു അവസ്ഥയാണിപ്പോൾ ഇപ്പോൾ പ്ലാവാണെങ്കിലും പെട്ടെന്ന് കായ്ക്കുന്ന പ്ലാവ് പിന്നെ നമുക്ക് ചൊട്ടിയിൽ നിന്ന് ചക്ക പറിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഒക്കെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്